വാർത്തകളിൽ നിരവധി സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ പറയാനുണ്ട് അതിൽ ഒന്നാമത്തെ ഇഷ്യുവായ ആരോഗ്യപരമായ സാമൂഹിക തരമായ ഒരു ഇഷ്യു ആ ഇഷ്യു ആണ് സമൂഹി സമൂഹത്തിൽ ഒരു സാമൂഹിക വിഷയമാണതും അത് മാധ്യമങ്ങളിൽ നിരന്തരമായി ഉന്നയിക്കുന്ന ചർച്ചയാണ് ഇപ്പം ഉദാഹരണമായി രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങള് രാഷ്ട്രിയപരമായ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നടക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയത്തിൽ നടക്കുന്ന പലവിധ കാരണങ്ങൾ ഇപ്പം ഒരു മാ രാഷ്ട്രീയത്തില് ഉദാഹരണമായി പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തില് ആ ഒരു പാർട്ടിയില് നടക്കുന്നതുമായ കാര്യങ്ങള് പാർട്ടിയുടെ നേതാവ് പാർട്ടിയിലെ അംഗങ്ങളുടെ കാര്യം അത് നിരവധി പ്രശ്നങ്ങളാണ് എന്തേലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന മാധ്യമങ്ങളെ സാ രാഷ്ട്രീയപരമായ ഉള്ള സാംസ്കാരിക സാമൂഹിക വാർത്തകളല്ലാതെ തന്നെ ഒരു സാമൂഹിക വാർത്തയായി ഉൾപ്പെടുന്നത് ഈ ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രളയം വന്ന സമയത്ത് നിരന്തരമായ രീതിയില് വാർത്തകള് ജനങ്ങളിലേക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഒരു വിഷയമാക്കി ജനങ്ങളിലേക്ക് എങ്ങനെ ഇതിൽന്ന് മുന്നേറണം അങ്ങനെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു പ്രളയം തന്നെയല്ല കൊറോണ വാക് കൊറോണാ സമയത്ത് അതൊരു ചർച്ചാ വിഷയവായിരുന്നു എല്ലാ ദിവസവും തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതായിരുന്നു വാക്സിൻ്റെ കാര്യം ഈ വാക്സിനെട്ത്ത് കുറെ നാൾ കഴിഞ്ഞ് നമ്മുടെ ഈ വാക്സിനെടുത്ത ജനങ്ങളിലേക്ക് ഇനിയൊരസുഖമോ എന്തെങ്കിലും അസ്വസ്ഥതകളോ വരുന്നോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ സാ വരുന്നൊണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ഉയർന്ന ഡോക്ടർമാരുടെ നിർദ്ദേശ പ്രകാരം പലവിധ സഹായപരമായ രീതികളിലും ഈ വാർത്തകളിലൂടെ തരുന്നുണ്ടായിരുന്നു വേ കൊറോണ അല്ലാതെ തന്നെ ഇപ്പോൾ ഈ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ആയ ആക്സിഡന്റ്റും ഉരുൾ പൊട്ടലുകളോ എല്ലാം തന്നെ നിരന്തരമായ വാർത്തകളിൽ ചർച്ചയാകുന്നുണ്ട് കോ ഈ ഒരു വിഷയമെന്ന് പറ കൊലപാത കേസുകള് അങ്ങനെ ഭൂമി റിലേറ്റഡ് തട്ടിപ്പ് കേസുകള് നിരവധി അങ്ങനെ നിരവധിയായ കേസുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സാമൂഹിക സാംസ്കാരിക വിഷയങ്ങള് ഉദാഹരണങ്ങളായി പലവിധ ഉദാഹരങ്ങൾ ഉണ്ട് അവയിലൊന്നാണ് ഞാൻ പറഞ്ഞ പോലെ കൊറോണ വൈറസ് ഉരുൾപൊട്ടല് എല്ലാം തന്നെ എല്ലാ ദിവസവും തന്നെ വൈകുന്നേരങ്ങളിലും രാവിലകളിലും ആയിത്തന്നെ എല്ലാ മാധ്യമങ്ങളും തന്നെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് ജനങ്ങൾക്കാവശ്യമായ രീതിയില് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടി ഉണ്ടാകുന്ന രീതി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഏതൊക്കെ വാർത്തകളാണോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് എന്താണാ ജനങ്ങളെ ജനങ്ങളുടെ വിഷയങ്ങൾ എന്നു പറഞ്ഞാൽ ജേ ജനങ്ങൾക്ക് വേണ്ടി അവർ മാധ്യമങ്ങൾ സംസാരിക്കുന്നു അവരുടെ ചർച്ചകളിലൂടെ

അവർക്ക് സാമ്പത്തികമായവരെ സഹായിച്ച് മൊബൈല് കൊടുക്കുകയും അങ്ങനെയെക്കെ സഹായിക്കുന്ന അത്പോലെ തന്നെ ഈ അധികം പയ് പൈസ ഇല്ലാതെ പിന്നോക്കമായി നിൽക്കുന്ന ആൾക്കാരെ അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും ഈ സമൂഹിക മാധ്യമങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട് നിരവധിയായ ചർച്ചകളിലൂടെ പിന്നോക്ക അവസ്ഥയെ നേരിടുന്നവരെ അവർക്കെന്താ അവരുടെ ആവശ്യങ്ങൾ അവർ മുൻപോട്ടിടുകയാണ് ഈ മാധ്യമ ചർച്ചകളിലൂടെ ഈ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ പിന്നോക്കമായി നിൽക്കുന്നത് കാട്ട് ജാതിക്കാരുണ്ട് കാട്ട് ജാതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മാധ്യ മാധ്യമമെന്താന്നറിയില്ല നമ്മുടെ പുറത്ത് നടക്കുന്നതെന്താണെന്നറിയില്ല എന്ന് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ആവശ്യങ്ങൾ അവറാ അവർക്കെന്താണാവശ്യവെന്ന് ഇത് ഈ സാമൂഹിക മാധ്യമങ്ങൾ വഴി ചർച്ചയായി ഈ ലോകമെങ്ങും തന്നെ ഇതറിയിക്കാൻ സഹായിക്കുന്നു